സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകുന്ന രീതിയിൽ നന്നായി തന്നെ മാറ്റി മറിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കൊറോ കൊറോണ വൈറസ് എന്ന് കോവിഡ് നയൻറ്റീൻ ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥിതീകരിച്ചതിൽ പിന്നെ ഫോണുകളുടെ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെധികം വർദ്ധിച്ചു എന്നാൽ ആളുകളുമായിട്ടുള്ളൊരു നേരിട്ടുള്ള ഇൻ്ററാക്ഷൻ ആ ഒരു കണക്ഷൻ ആ ഒരു ബന്ധപ്പെടൽ നഷ്ടപ്പെട്ടു ഫോണിനും ലാപ്ടോപ്പിനും ടി വികൾക്കും മറ്റ് സാമൂഹിക മീഡിയകൾക്കും അടിമപ്പെട്ട് എന്താ മനുഷ്യർ തമ്മിലുള്ളൊരു അന്തരമാണ് ഇവിടെ എനിക്ക് പ്രകടമായി തോന്നിയത് കാരണം മനുഷ്യരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അല്ലെങ്കിൽ പരസ്പരം അവർ സംസാരിക്കുന്നില്ല ഇപ്പം രണ്ട് പേരുള്ളൊരിടത്താണെങ്കിലും അവരുടെ രണ്ട് പേരുടെയെങ്കിലും ഫോൺ കണ്ടാൽ അവർ സംസാരിക്കുന്ന വളരെയധികം കുറവാണ് സോഷ്യൽ മീഡിയയുടെ അല്ല സോഷ്യൽ മീഡിയ സഹായിച്ചതായിട്ട് ഒരു പക്ഷേ ഒരു പരിധി വരെ വിദ്യാഭ്യാസത്തെ സഹായിച്ചു അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ കൊറ കോവിഡ് നയൻറ്റീനിൻ്റെ ടൈമിൽ വിദ്യാഭ്യാസം നമുക്ക് സ്വായത്തമാക്കാൻ സഹായിച്ചിരുന്നത് മാധ്യമം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മാധ്യമങ്ങളാണ് അത് സഹായിച്ചു എന്നിരുന്നാലും മനുഷ്യ ബന്ധങ്ങളുടെ ഒരു കെട്ടുറപ്പുണ്ട് അതിനെ സാരമായി തന്നെ ഇത് ഗുരുതരമായി തന്നെ ബാധിച്ചു എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം നമുക്കറിയാം ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് ഉറപ്പായും ഒരു മൊബൈൽ ഫോണുണ്ടാകും അത് അവന്റൊരു സാമൂഹിക ചുറ്റുപാടിനെയും അതു പോലെ തന്നെ സോഷ്യൽ ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരോടുമായിട്ടുള്ള ഒരു സംസാരത്തെയെല്ലാം വളരെ സാരമായി രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ആ സാരമായ രീതിയിൽ ബാധിച്ചതിൻ്റെ ഭവിഷ്യത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ ഇത് ഒരു പരിധി വരെ സഹായം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഗുണത്തിലേറെ ദോഷമാണ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ചില പ്രതികൂല ബലങ്ങളാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇമ്പോ ഇത് വളരെ പ്രധാനമൊ പ്രാധാന്യമുള്ള ഒന്നാണ് കാരണം ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നാലും നമുക്ക് എന്ത് വാർത്ത വേണമെങ്കിലും എവിടുത്തെ ആണെങ്കിലും നമുക്കറിയാൻ സാധിക്കും പക്ഷേ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട് നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കാണുന്നത് ഈ സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ ജനങ്ങളാണ് അല്ലെങ്കിൽ നമുക്കുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ ആയല്പക്കക്കാർ എന്നിവരൊക്കെയാണ് അവരെല്ലാം കെട്ടുറപ്പോടെ പിടിച്ചു നിർത്തുന്നതാണ് നമ്മുടൊരു ശരിയായൊരു സമ്പ്രദായം ആ ഒരു രീതി അത് പിന്തുടരണം എന്നാണ് എൻ്റഭിപ്രായം